ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഒരുപാട് മതപരമായ ഫെയ്മസ് ആയ സ്ഥാപനങ്ങളുണ്ട് പള്ളികൾ അമ്പലങ്ങൾ തുടങ്ങിയ ഒരുപാട് ഇതൊക്കെയുണ്ട് പക്ഷേ എനിക്ക് അതിലെനിക്കറിയാവുന്ന ഒന്ന് രണ്ടെണ്ണങ്ങള് പള്ളിക്കുന്ന് പള്ളി പള്ളിക്കുന്ന് ഒരുപാട് വിശ്വാസികൾ വരുന്നതാണ് അവിടെ പെരുന്നാളിൻ്റെ സമയത്ത് എല്ലാ മതത്തിലും പെട്ട ഒരുപാട് പേർ ഒരുപാട് വിശ്വാസികൾ വന്ന് നേർച്ചയും കാഴ്ച്ചകളൊക്കെ വച്ചിട്ട് പോകുന്നതാണ് പള്ളിക്കുന്ന് അതുപോലെ തന്നെ ഒന്നാണ് വള്ളിയൂർകാവ് അമ്പലം വള്ളിയൂർകാവ് തുടങ്ങിയ ഒരുമാസത്തെ ഒരുമാസത്തെ ഉൽസവാണ് ആ ഉത്സവത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും ഒരുപാട് മതവിശ്വാസികൾ എത്തിച്ചേരുന്നു ആ അവിടെ സന്ദർശിക്കാനും അവിടുത്തെ പുണ്യം ലഭിക്കാനുമൊക്കെ വേണ്ടി ആ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നിറഞ്ഞതാണ് ഞാൻ താമസിക്കുന്ന ഗ്രാമം